പാചക വിധീന്ന് പറയുമ്പം ഇവിടുത്തെ കപ്പേം മീൻ കറിയും ഒക്കെ വളരെ സ്വാദുള്ള വിഭവങ്ങളാണ് കപ്പേന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവമാണ് അതാരോഗ്യത്തിന് ഏറ്റോം നല്ലതാണ് കപ്പേം മീൻ കറിയും മീനന്നക്കെ പറയുന്നത് നമ്മുടെ ആറ്റിന്നക്കെ പിടിക്കുന്ന മീനക്കെ വെച്ച് മീൻ കറിയും അതക്കെയായിരുന്നു പണ്ട് കാലത്തുള്ള ആൾക്കാരെ പ്രധാന ഭക്ഷണമെന്നൊക്കെ പറയുന്നത് നമ്മുടെ വല്യപ്പൻമ്മാരുടേം വല്യമ്മച്ചിമാരുടേം ഒക്കെ പ്രധാന ഭക്ഷണങ്ങളിലൊന്നാണ് ഈ കഞ്ഞി പിന്നെ ഈ കപ്പേം മീൻ കറിയും പിന്നെ അതു കണക്കുള്ള ഈ നാടുകളിൽ നിന്ന് കിട്ടുന്ന ചേന ചേമ്പ് അത് കണക്കുള്ള സംഭവങ്ങളൊക്കെ വച്ചിട്ടുള്ള ഭക്ഷണങ്ങളായിരുന്നു അവരുടെ പ്രധാന ഭക്ഷണങ്ങളെന്ന് പറയുന്നത് അതൊക്കെ അവര ആരോഗ്യത്തിന് നിലനിർത്താനായിട്ടവരെ വളരെയധികം സഹായിച്ചു ഈ കപ്പാന്നൊക്കെ പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റോം നല്ലതാണ് ഈ ചേമ്പ് ചേന അതുപോലെ മരിച്ചീനി ഈ കപ്പേം മീൻ കറീന്നക്കെ പറയുന്നത് തന്നെ ഏറ്റോം രുചിയുള്ള വിഭവങ്ങളാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് നമ്മൾ നമ്മുടെയൊക്കെ വീടുകളിലക്കെ മിക്കപ്പോഴും ഉണ്ടാക്കുന്നതക്കെയാണ് അപ്പം അതേറ്റവും രുചിയുള്ളൊരു വിഭവമാണ്